അതായതിപ്പോൾ തക്കാളിക്ക് ആണെങ്കിലും വില കൂടുതലാണ് അപ്പോൾ ഉള്ളിക്കാണെങ്കിലും വില കൂടുതലാണ് അപ്പോൾ നമ്മുടെ കര്ഷകരെ അടുത്തുനിന്ന് സ്വീകരിക്കുന്നത് അവര്ക്ക് തുച്ഛമായ വില കൊടുത്തും

അതായത് പതിനഞ്ച് വര്ഷത്തേക്ക് ഇവര്ക്ക് ഇത് കൊടുക്കുന്നതാണ് ജോലി കൊടുക്കുന്നതാണ് ഇപ്പം അഗ്നിപഥ് എന്നു പറഞ്ഞിട്ടൊരു സംഭവം വന്നതുകൊണ്ട് നാലു വര്ഷത്തേക്ക് ആക്കി ചുരുക്കിയിട്ടുണ്ട് അപ്പം ഇവര്ക്ക് മൊത്തം പൈസ അങ്ങു കൊടുക്കും നാലു വര്ഷം കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുമ്പം പന്ത്രണ്ട് ലക്ഷം രൂപ എങ്ങാണ്ട് ഇവരുടെ എക്കൗണ്ടിലേക്ക് കൊടുക്കും പി എഫ് ഒ ഗ്രാറ്റിവിറ്റിയോ അങ്ങനത്തെ ഒന്നുമില്ല അതാണിപ്പോൾ ഉള്ള പ്രശ്നം എന്നുവച്ചാൽ അങ്ങനെയാണുള്ളത് അപ്പം ഈ തൊഴില് വിപണിയിൽ ഏറ്റവും വെല്ലുവിളിയാണ് ഇപ്പം നേരിടുന്നത് ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ആര്ക്കും തന്നെ ജോലിയും കാര്യങ്ങളും ഒന്നും ഇല്ല എല്ലാവരും അല്ലറ ചില്ലറ ജോലിയൊക്കെ എടുത്ത് തട്ടിയും മുട്ടിയും അങ്ങ് പോവും അപ്പം അതുകൊണ്ടാണ് എല്ലാവരും എന്തു ചെയ്തത് ഗള്ഫിലേക്കും മറ്റു കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് അവിടെ ആവുമ്പം ഇവിടുത്തെ പൈസേനെക്കാളും മൂല്യം കൂടുതൽ അവിടെയുണ്ട് അവിടെ പിന്നെ സാലറിയും കൂടുതലായിരിക്കും അതുകൊണ്ട് എല്ലാവരും അവിടേയ്ക്കാണ് പോവുന്നത്